എനിക്ക് പിന്നെ രണ്ട് ദിവസം മുന്നേ കൊറോണ ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആയിരുന്നു എനിക്ക് ചെറുതായിട്ട് ഒരു ജലദോഷം ഉള്ളതുകൊണ്ട് അന്ന് ടെസ്റ്റ് ചെയ്തതാണ് പിന്നെ വീട്ടിൽ ഇവിടെ ഏട്ടനൊക്കെ കൊറോണ ആയതുകൊണ്ട് നമ്മൾ ഏട്ടൻ ക്വാറൻറ്റൈനിലാണ് അപ്പോൾ പിന്നെ രണ്ട് ദിവസത്തിന് മുന്നേ പിന്നെ എനിക്ക് ചെറുതായിട്ടൊന്ന് പിന്നെ ജലദോഷം വന്നപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് അപ്പോൾ കൊറോണ പോസിറ്റീവ് ആണ് മ് അപ്പോൾ കൊറോണ പോസിറ്റീവ് ആണ് അപ്പം പിന്നെ ഇ ഇന്നെനിക്ക് ഭയങ്കര പനി മ് ഭയങ്കര ക്ഷീണം മേല് വേദനയൊക്കെ പാരസെറ്റാമോൾ പിന്നെ ഇവിടെ കൊണ്ട് തന്നിട്ടില്ല എനിക്ക് രണ്ട് ദിവസമല്ലേ സ്ഥിരീകരിച്ചത് അപ്പോൾ എനിക്ക് ഏട്ടൻ്റെ ഇത് തന്നെയാണ് എനിക്ക് അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടെ ഒരുമിച്ചാണ് കഴിക്കുന്നത് പാരസെറ്റാമോൾ ഒക്കെ കഴിക്കുന്നുണ്ട് ഭയങ്കര ഷീണം മേലുവേദനയും ജലദോഷവും മൂക്കൊലിപ്പും തലവേദനയും ഉണ്ട് ഉണ്ട് രണ്ട് ദിവസമായിട്ട് ഭയങ്കര പനിയാണ് അതായത് ഇടവിട്ട് ഇടവിട്ട് ഇടവിട്ട് അത് അഞ്ച് മിനുട്ട് അഞ്ച് മിനുട്ട് കൂടുമ്പോൾ പനിയും അതുപോലെ വിയർത്ത് പോവും പിന്നെയും അതുപോലെത്തന്നെ പനിയും അങ്ങനെയാണ്

ആ ഭക്ഷണം കഴിക്കുന്നുണ്ട് മ് മ്

ആ ആ ആ ആ മ് ആണോ ആ ആ

ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ ഓക്കെ എന്നാലും ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കുഴപ്പം ഉണ്ടെങ്കിൽ വിളിക്കാം